ഇപ്പോൾ നമ്മള് കണ്ട് വരുന്നത് ഹോഴ്സിനെക്കെ എന്തിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യണേന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മള് കണ്ട് വരുന്നത് എന്താന്ന് വച്ച് കഴിഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡികൂടെക്കെ ഹോഴ്സിനെ ഇപ്പോൾ ഓരോ ദിവസത്തെ ക്യാഷൊക്കെ വച്ചിട്ട് റൈഡിങിന് കൊണ്ട് പോവുക അതായത് ഒരു പേഴ്സൺ എത്ര വച്ചെന്നൊക്കെ പറഞ്ഞ് റൈഡിന് കൊണ്ട് പോകുന്നതല്ലേ നമ്മള് സാധാരണ കണ്ട് വരുന്നത് അപ്പോൾ അതങ്ങനെയാണെന്ന് വച്ച് കഴിഞ്ഞാ നമ്മള് സാധാരണ എന്താ പറയുക കുതിരനേം കൊണ്ട് വന്നിട്ട് ആൾക്കാര് അവിടെ വെയിറ്റ് ചെയ്ത് അപ്പം അങ്ങനേക്കെയായാണ് കൂടുതലായിട്ടും എന്ത് പറയാ കുതിരകളെ ഇതാക്കുന്നത് അപ്പം ഇവറ്റകൾക്ക് എന്താ പറയുക വെള്ളം പോലും കൊടുക്കാണ്ട് നട്ടപ്രാ വെയിലത്തക്കെ നിർത്തിട്ടാണ് അവരെ എന്താ പറയുക ഇങ്ങനെ പൈസേണ്ടാക്കുന്നത് അതൊക്കെ മോശായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പം മൃഗസംരക്ഷണ വകുപ്പിലുള്ളവരോട് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെ വേണങ്കിലും മൃഗത്തിനെ പരിപാലിക്കാനൊള്ള ഹെൽപ്പക്കെ അവര് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ പിന്നെ ഇതിനൊക്കെ ഇപ്പോൾ വീട്ടുലുള്ളവര് മെയിൻറ്റയിൻ ചെയ്യാൻ വേണ്ടീട്ട് ഞാൻ കൂടുതലയിട്ട് എങ്ങനെയെക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വച്ച് കഴിഞ്ഞാൽ ഞാന് സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അതായത് നല്ല വെള്ളവും പുല്ല് അങ്ങനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ അതിനെ കാലേല് നഖമൊക്കെ നല്ലോണം വെട്ടി കൊടുത്ത് അതായത് അതിൻ്റെ നഖമൊക്കെ കറക്റ്റ് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടാണ് നമ്മള് സൂക്ഷിക്കുന്നത് പിന്നെ വേണ്ട ടൈമിലതിൻ്റെ വേണ്ട വാക്സിനേഷനും കാര്യങ്ങളും മരുന്നായിക്കോട്ടെ എല്ലാം തന്നെ നമ്മള് പ്രിഫറ് അതായത് ഡോക്ടറെടുത്ത് കൊണ്ട് പോയി പ്രിഫറ് ആയി പുള്ളി പ്രിഫറ് ചെയ്ത മരുന്നുകളെല്ലാം നമ്മള് വാങ്ങി കൊടുത്തിട്ടാണ് ആ കുതിരേനെ നമ്മള് നല്ല രീതിക്ക് തന്നെ മെയിൻറ്റയിൻ ചെയ്യുന്നത്